ഞാന് പള്ളിയിലൊക്ക പാട്ട് പാടും എനിക്ക് ശ്വാസത്തിനങ്ങനെ കുഴപ്പം ഒന്നുമില്ല ചിലപ്പോള് ചില കഫക്കെട്ട് പോലൊക്ക വരുമ്പഴത്തേക്കും ഇങ്ങനൊന്ന് മൊരടനക്കി അത് മാറ്റിക്കൊണ്ട് നമ്മള് പാടും നമ്മളാ പാട്ട് പാടുന്ന സമ്മതി സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാല് നമ്മടെ ഓഡിയൻസിനെ നോക്കുകയും അതുപോലെതന്നെ നമ്മുടെ പാട്ടിൻ്റെ അവരുടെ മുഖഭാവം ആ ഓടിയൻസിനെ നോക്കുമ്പോള് അവരുടെ മുഖഭാവം നമ്മള്ക്കറിയാം അപ്പോള് നമ്മുടെ പാ പാട്ട് ഒക്കുന്നുണ്ടോ അതേസമയം പാട് മറ്റുള്ളവര് നമ്മളെ ശരിയായരീതിയില് വീക്ഷിക്കുന്നുണ്ടോ അവരങ്ങോട്ട് പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇതൊക്കെ നമ്മള്ക്ക് നോക്കാനായിട്ട് സാധിക്കും അപ്പോള് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാല് നമ്മള് പാട്ട് പാടുമ്പോള് ഏറ്റവും അധികമായി വേണ്ടത് നമ്മുടെ ഓർമ്മയാണ് മെമ്മറി മെമ്മറി നമ്മള്ക്ക് നെരെ കിട്ടണം ആ പാട്ടിൻ്റെ വരികള് ഓർക്കുകയും ആ വരികള് നമ്മള് ചെയ്യുമ്പോഴത്തേക്ക് ആ ഉചിതപൂർവം ആ വരികള് പാടിയെടുക്കാനും അതിൻ്റെ അർത്ഥം ശരിയായവിധത്തിൽ കേൾവിക്കാർക്ക് മനസ്സിലാകാനുള്ള വിധത്തില് പാട്ട് പാടണം അതുപോലെതന്നെ പാട്ട് പാടുമ്പോള് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുള്ളതെന്നുവച്ചാൽ അതിന്റെ താളം മുകളില് കൊടുത്തിട്ടുണ്ട് ആ താളത്തിനനുസരിച്ച് പാടാന് നമ്മള് കഴിവതും ശ്രദ്ധിക്കണം ചിലപ്പോള് എല്ലാവർക്കും മറ്റുന്നയ്നുള്ള എല്ലാ കഴിവുകളൊന്നും കാണത്തില്ല അപ്പോള് ആ കഴിവുകള് കാണത്തില്ലെങ്കിലും നമ്മക്കടെ ഓർമ്മയിൽ മറ്റുള്ളവര് പാടിയതും അതിന്റെ ടൂണെടുത്തതും അവര് ശീലിച്ചതും നമ്മുടെ മനസ്സില് പതിഞ്ഞിട്ടൊണ്ട് അതിനനുസരിച്ച് നമ്മള് ആ പാട്ടിൻ്റെ രൂപം മെച്ചപ്പെടുത്താനും അത് നമ്മുടെ മനസ്സിലോർമ്മയുണ്ട് അവരങ്ങനാണല്ലോ പാടിയത് അതുകൊണ്ട് ഞാനിങ്ങനെയെഴുതിയാലത് ശരിയാകും എന്നും പറഞ്ഞ് ആ പാട്ട് നമ്മള് ശരിയാക്കി ഇതൊന്ന് പാടി അത് നല്ലതാണ്